ഇപ്പം നമ്മുടെ നാട്ടിൽ എന്നു പറയുമ്പോൾ ഗതാഗതം എന്നു പറയുമ്പോൾ ഭയങ്കര ഡിഫ്ഫിക്കൽട്ടാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ റോഡുകൾ കാര്യങ്ങൾ പിന്നെ ഓരോന്ന് ടൈമിങ്ങ് കാര്യങ്ങളൊക്കെ വച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്നു പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ഒന്നും അല്ല നല്ല റോഡുകൾ ഉള്ള സ്ഥലങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നല്ല മോശം റോഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗതാഗതത്തിനു ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചില സ്ഥലങ്ങളിലേയ്ക്ക് ബസ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ വരുന്നത് ഡിപെന്റബിൾ ആയിട്ടാണ് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടും എന്നാൽ ഫുൾ ടൈം അങ്ങനെയൊന്ന് ഉണ്ടാവാറില്ല അതുപോലെതന്നെ നമ്മുടെ നാട്ടിലെന്നു പറയുമ്പോൾ ഇപ്പം ദിനംപ്രതി എണ്ണേൻ്റെ വിലകൾ കാര്യങ്ങളൊക്ക നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ചു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കയുണ്ട് ഓരോ സ്ഥലങ്ങളിലേയ്ക്ക് പോകുമ്പോൾ നമ്മുടെ എണ്ണ ചിലവ് കാര്യങ്ങളൊക്കെ എന്നു പറയുമ്പോൾ ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ടാക്സ് കാര്യങ്ങളും ഒക്കെയായിട്ട് ഓരോ ദിവസം കൂടുംതോറും നമ്മുടെ ചിലവ് കാര്യങ്ങളൊക്ക കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാണ്ട് അതിലൊന്നും കുറവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുപോലെതന്നെ ഓരോ സ്ഥലത്തേയ്ക്കാണെങ്കിലും ഇപ്പം ബസ്സ് ചാർജ് കാര്യങ്ങളൊക്ക ആണെങ്കിൽപ്പോലും അതെല്ലാം കൂടുതലാണ് പിന്നെ ട്രയിൻ അങ്ങനെ ആകുമ്പോൾത്തന്നെ അതും അതിൻ്റെ ടൈമിംഗ് കാര്യങ്ങളും ഡിലെ ആകുന്നതും ഒക്കെ ആയിട്ട് അതും അങ്ങനെയാണ് ഇപ്പോൾ ക്യാമ്പ് കാര്യങ്ങളൊക്ക ആകുമ്പോഴാണെങ്കിൽ അതും ഓരോ ടൈമിംഗിന് അനുസരിച്ച് റേറ്റ് കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിലെ എല്ലാം വരുന്നത് കാരണം ഈ നമ്മുടെ അതായത് ഇതിന് യൂസ് ചെയ്യുന്ന ഇന്ധനങ്ങളുടെ വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടുതന്നെ ഓരോ ദിവസവും ഇങ്ങനെ ചേഞ്ച് ആയികൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഓരോ ഇതിനും ഡിപ്പെന്റബിൾ ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്